മതവും ടൂറിസവും പെട്ടെന്ന് പേരുകൾ കേൾക്കുമ്പോൾ രണ്ടും രണ്ടാണെന്ന് തോന്നുമെങ്കിലും ചില അനുഭവങ്ങൾ വരുമ്പോൾ നമുക്ക് തോന്നും അവ തമ്മിലും ബന്ധമുണ്ടെന്ന് എൻ്റെ പ്രദേശം തൃശ്ശൂരിലെ ഗുരുവായൂർ എന്ന സ്ഥലമാണ് ഇവിടെ മത പ്രാധാന്യം വളരെ അധികമാണ് ഗുരുവായൂർ അമ്പലം എന്ന വലിയ ഒരു ഫാക്ടർ ഈ ഗുരുവായൂരിനെ വളരെ അധികം പ്രശസ്തമാക്കുന്നു അത് ഹിന്ദുമത ആചാരപ്രകാരമുള്ള ഒരമ്പലമാണെന്നും അവിടെ വരുന്നത് വളരെ പുണ്യകരമായ ഒരു കാര്യമാണെന്നും ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നവർ അങ്ങനെ വിശ്വസിക്കുന്നു അപ്പോൾ അവർ ഈ നാട്ടിലേക്ക് വരുകയും സ്വാഭാവികമായും ഇവിടുത്തെ ചുറ്റുവട്ടമുള്ള സ്ഥലങ്ങളിലെല്ലാം ആ അവരുടെ വരവ് പ്രതിഭലിക്കുകയും ചെയ്യും ഇന്ന് ഗുരുവായൂരമ്പലത്തിൻ്റെ ചുറ്റും ഒരുപാട് കടകളും ഒരുപാട് ഹോട്ടലുകളും താമസിക്കാനുള്ള ലോഡ്ജുകളുമെല്ലാം പടർന്നു പന്തലിച്ച് കിടക്കുകയാണ് അവയെല്ലാം അതിൽ നിന്നും അവരെല്ലാം അതിൽ നിന്നും വരുമാനം കണ്ടെത്തുന്നുമുണ്ട് അത് മതവും ടൂറിസവും തമ്മിലുള്ള ബന്ധം കൊണ്ട് തന്നെയാണ് അതുമാത്രമല്ല ഗുരുവായൂരിൽ വന്ന് താമസിക്കുന്ന ഒരാൾക്ക് ഇതിൻ്റെ ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള വിനോദസഞ്ചാരസ്ഥലങ്ങളിലേക്കും പോകാനുണ്ടാകുന്ന ആഗ്രഹവും ചെറുതല്ല അങ്ങനെ ഇവിടെ അടുത്തുള്ള ആനക്കോട്ട അല്ലെങ്കിൽ വിലങ്ങൻകുന്ന് അതുമല്ലെങ്കിൽ അതുപോലെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും അവർ പോകും അതും ഈ ടൂറിസത്തെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്നു അതുകൊണ്ടു തന്നെ മതം അല്ലെങ്കിൽ മതം കേന്ദ്രീകരിച്ച ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ഒരു സമുച്ചയം ഉണ്ടെങ്കിൽ അതിന് ചുറ്റുമുള്ള ടൂറിസവും അതിൽ നിന്നും എന്താ പറയാ അതിൽ നിന്നും അതിൻ്റെ സാരാംശങ്ങൾ ഉൾക്കൊള്ളും എന്നത് ഒരു യാഥാർഥ്യം തന്നെയാണ്